ആ സർ ഞാന് എനിക്ക് മക്കളെ ചേർക്കാൻ ഉണ്ടായിരുന്നു രണ്ട് ആളെ ഒരാളെ എൽകെജിയിലേക്കും ഒരാളെ സെക്കൻഡ് സ്റ്റാൻഡേർഡിലേക്കും ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അത് ഞങ്ങള് ഇപ്പോൾ സ്ഥലം മറി വന്നതാണ് നമ്മള് വീട് ഇവിടെ അല്ലായിരുന്നു താമസിക്കുന്നത് അത് ഞങ്ങള് ഇപ്പോൾ ഇങ്ങോട്ട് മാറി വന്നപ്പോൾ അവരെ ഇങ്ങോട്ട് ചേർക്കാൻ വേണ്ടിട്ടായിരുന്നു പിന്നെ സെക്കൻഡ് സ്റ്റാൻഡേർഡ് കാർക്ക് എക്സാം കാര്യങ്ങളും അറ്റൻഡ് ചെയ്യേണ്ടി വരുമോ ഓക്കേ ഇവരെ അഡ്മിഷൻ ഫീയും കാര്യങ്ങൾ ഒക്കെ എങ്ങനെയാണ് വരുന്നത് ഡൊണേഷൻ ഒക്കെ ഡൊണേഷൻ മാത്രമോ ഓക്കേ അപ്പം ഇവരുടെ ബുക്ക് മണി യൂണിഫോം കാര്യങ്ങളൊക്കെ

ബുക്ക് മണിയോ ഇവരുടെ ബുക്ക് മണി എത്രയാണ് വരുന്നത് എൽ കെ ജി ക്കും രണ്ടാം സ്റ്റാൻഡേർഡിനും ബുക്ക് മണി എത്രയാണ് വരുന്നത് ആ ഓക്കേ ആ ഓക്കേ ഓക്കേ ആ ഓക്കേ ആ സ്കൂൾ ബസിന് മന്തിലി ഒരു സ്റ്റുഡന്റിന് എത്രയാണ് വരുന്നത് ഫീ ആ ഓക്കേ ഓക്കേ ഇതിലേ മാനന്തവാടി അമ്പുതി വഴി ഒക്കെ ബസ് പോകുന്നുണ്ടോ

ആ ഓക്കേ ഓക്കേ ഫുഡും കാര്യങ്ങളും ഒക്കെ അവിടുന്ന് കൊടുത്തോളും അല്ലെ ഓക്കേ ആ ഓക്കേ ആ ഓക്കേ സർ ഓക്കേ അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ട് ഒന്നുമില്ലല്ലോ ക്ലാസ്സ് തുടങ്ങിയത് ആയതുകൊണ്ട് ആ ഓക്കേ സർ എന്നാൽ നാളെ വരാം ഓക്കേ ആ ഓക്കേ ഓക്കേ